ആ താനാണോ അക്ഷയ് താനിന്ന് ഫുട്ബോളിൻ്റെ അതിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ഇപ്പോൾ വേറെയെന്താ ഇപ്പോൾ ഇപ്പോഴെന്താ പഠിക്കുകയാണോ ആണല്ലെ പിന്നേയ് മുമ്പ് എവിടെയെങ്കിലും കളി ഇത് പഠിക്കാൻ പോയിട്ടുണ്ടോ അങ്ങനെ എവിടെയെങ്കിലും പഠിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ച് ആരുടെയെങ്കിലും അടിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഓക്കെ പിന്നെ നമുക്ക് ഫുട്ബോള് കളിക്കാൻ മെയിനായിട്ട് വേണ്ടത് സ്റ്റാമിനയാണ് അറിയാല്ലോ അല്ലേ നിങ്ങളെ രാവിലെ ഓടാനൊക്കെ പോകാറുണ്ടോ

അതെയല്ലേ ആ മുമ്പ് മറ്റെ വീണിട്ട് കാലിന് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും സർജറി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കാലിലെങ്ങാനും വേറെ ബോഡിയിൽ സർജറി ഒന്നും ഇല്ലല്ലോ അല്ലേ ആ ഓക്കെ പിന്നേ ഇപ്പോൾ നമ്മൾ കളിക്കുവാനാണെങ്കിൽ ഇപ്പോൾ ഏത് മറ്റെ ഫോർവേഡ് ആണോ മിഡ് ആണോ ഡിഫൻസോ ഏത് കളിക്കാനാണ് താൽപര്യം

ഓക്കെ നമ്മൾ ഏതെങ്കിലും ഒരു റോളിൽ കുറച്ചും കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് നമുക്ക് നല്ലത് ആ അതെയല്ലേ ഇപ്പോൾ നമ്മൾ ഇവിടെ എന്നു വച്ച് കഴിഞ്ഞാൽ ഇവിടെ രാവിലെ കൃത്യം നാല് മണിക്കാണ് ഇവിടെ തുടങ്ങുക ഓക്കെ നാലു മണിക്കിവിടെ കറക്ട് നാലുമണിക്ക് എത്തണം വീട് ഇവിടെ അടുത്ത് തന്നെയാണോ ആ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾക്ക് നാലുമണിക്കിവിടെ എത്തണം പറഞ്ഞാൽ നാല് മണി മാക്സിമം നാലേ കാലിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കുറച്ച് ദൂരെയുള്ളവർ വരാനുള്ള സമയം ഉള്ളതുകൊണ്ട് നാല് കാലിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും രാവിലെ ഏഴു മണി വരെയാണ് പ്രാക്ട്ടീസ് ഉണ്ടാവുക അതു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ പോകണതുകൊണ്ട് നമ്മൾ നാല് കാല് ടൂ ഏഴു മണി വരെ അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വരണ സമയത്ത് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ പുറത്ത് ഒരു ഗ്യാപ്പ് കണ്ടിട്ടുണ്ടാവുക റണ്ണിങ്ങിൻ്റെ കോർട്ട് പോലെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ അപ്പോൾ അവിടെ നമ്മൾ വന്ന വഴിക്ക് ഒരു പത്ത് റൗണ്ട് അവിടെ ഓടണം സ്റ്റാർട്ടിങ്ങ് ഒരു പത്ത് റൗണ്ട് നമുക്ക് അപ്പോൾ നമ്മുടെ വേറെ ഇവിടുത്തെ സീനിയറായിട്ടുള്ള ആൾക്കാറുണ്ടാകും അപ്പോൾ അവരെ കൂടെ ഒരു പത്ത് റൗണ്ട് ഓടിക്കഴിഞ്ഞിട്ട് നേരെ കോർട്ടിൽ കയറാം ഓക്കെ നമുക്ക് ടീമ് നാളത്തേക്ക് വേണ്ട നാളെ വരണ്ട നമുക്ക് മറ്റന്നാളേയ്ക്ക് മതി നാളെ വരണ്ടായെന്ന് പറഞ്ഞത് വേറൊന്നും അല്ല നമുക്ക് എന്നാൽ ബോഡി ഒന്ന് ഇതേപോലെ കുറച്ചു ദൂരം ഓടി ഒര് രണ്ട് കിലോമീറ്റർ മൂന്ന് മിനുട്ട് രാവിലെയും വൈകുന്നേരവും ഓടണം ഓക്കെ എന്താ പറഞ്ഞാൽ മറ്റന്നാൾ വന്നാൽ മതി അപ്പോഴേക്കും നമ്മൾ ടീമിൻ്റെ പുതിയ ടീമ് ഇപ്പോൾ വന്ന കുട്ടികളെ അനുസരിച്ച് ഒരു ടീമൊന്ന് സെലക്ട് ആക്കിയിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഒര് പ്രാക്ടീസ് മാച്ച് പോലെ മറ്റന്നാൾ വയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം നമുക്ക് തുടങ്ങാം ക്ലാസ്സൊക്കെ ഏ അപ്പോൾ ബൂട്ടൊക്കെ നല്ലതുണ്ടല്ലോ അല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ പേഡും കാര്യങ്ങളൊക്കെ ആ ഓക്കേ ആ കിറ്റ് കയ്യിലുണ്ടല്ലോ അല്ലേ അപ്പോൾ മറ്റന്നാൾ വരുമ്പോൾ കിറ്റുമായിട്ട് വേണം വരാൻ ഒരു മാച്ച് കളിക്കാനുള്ള രീതിയിൽ ജേഴ്സി കാര്യങ്ങൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പ്രോവൈഡ് ചെയ്യും നിങ്ങളതിന് ചെറിയൊരു പേമെൻറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ ഫീസൊക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ കളി പോലെ ഇരിക്കും ഞങ്ങൾ നന്നായി കളിച്ചാൽ നമുക്ക് അത്ര ഫീസ് വാങ്ങിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ മടിപിടിച്ച് കളിക്കാൻ വെറുതേ ആക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ നന്നായി കളിക്കുകയാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ അത്രയും സപ്പോർട്ട് ചെയ്തു തരും അപ്പം എന്നാൽ നമുക്ക് ഇന്നിപ്പോൾ ഒരു പത്ത് റൌണ്ട് ഓടിയിട്ട് വീട്ടിൽ പൊയ്ക്കോളൂ ഇപ്പോൾ അതുപോലെ നാളെ വീട്ടിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒരു രണ്ട് കിലോമീറ്റർ രാവിലെയും വൈകുന്നേരവും ഓടാൻ നോക്കുക പിന്നെ നിങ്ങളെ ഈ മറ്റേ പുറത്ത് പോയി കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം നമ്മളൊരു പ്രൊഫഷണല് കളിയിൽ എന്ന രീതിയിൽ കളിച്ചാൽ മതി ഓക്കെ കളിക്കാൻ പോകണ്ടയെന്നല്ല കളിക്കാൻ പോകണ സമയത്തൊക്കെ ഇത് പ്രൊഫഷണലായിട്ടുള്ള ഒരു ഇതിൽ കളിക്കുക പറയാം ഒക്കെ അപ്പോഴെന്നാൽ മറ്റന്നാൾ രാവിലെ കാണാം സമയം മറക്കണ്ട നാലേകാൽ അത് കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ കയറ്റില്ല ആ ശരി